ഒഴിവ് സമയങ്ങള് കുട്ടികള് മെയ്നായിട്ട് പുറത്തിറങ്ങി ഫുട്ബോള് അതുപോലുള്ള ക്രിക്കറ്റ് അങ്ങനെയുള്ള ഗെയിംസായിരിക്കും കളിക്കുന്നത് മെയ്നായിട്ടും ഫുട്ബോള് ഇപ്പം ടീവിയിലങ്ങനെ ഫുട്ബോൾ താരങ്ങളെല്ലാവരും എല്ലാ ഇൻസ്പെയേഡ് ആയിട്ട് കുട്ടികൾ മെയ്നായിട്ട് ഫുട്ബോള് പണ്ടത്തെ കാലങ്ങളിലൊക്കെയായിരുന്നെങ്കില് കുട്ടീം കോല് സാറ്റ് അങ്ങനെയുള്ള കളികളൊക്കെ ആയിരുന്നു അതക്കെ മാറി വന്നിപ്പം എല്ലാവരും ഒര് പ്രഫഷണൽ രീതിയിലെല്ലാം കുട്ടികള് കുട്ടികൾക്കോ ഇന്നാ ഇങ്ങനത്തെ ഗെയിംസിന് കോച്ചിങ്ങിന് തന്നെ പോകുന്നുണ്ട് അതൊര് നല്ലൊര് കാര്യം തന്നെയാണ് സ്പോർട്സിലൂടെ സ്പോർട്സിലൂടെ ഇത് പോലുള്ള കളികളിലൂടെ കൂട്ടായ്മയുടൊര് സൗഹൃദത്തിൻ്റെ ഒരു ബന്ധം അവിടെ വളരുകയും ചെയ്യും അത് അവർക്ക് പിന്നീട് അവരുടെ ലൈഫില് പിന്നീടതൊരു നല്ലൊരു ഓർമ്മയായിട്ടും മെമ്മറീസായിട്ടും കിടക്കുന്നതിനാല് അങ്ങനൊരു അതൊര് നല്ലൊര് കാര്യം തന്നെയാണ് തീർച്ചയായും ഒഴിവ് സമയങ്ങൾ കുട്ടികളിങ്ങനെ ഏർപ്പെടണം എന്നാലേ അവർക്ക് ഫിസിക്കലി ഒരു ഫിറ്റായിട്ടുള്ളൊരു ഇതെല്ലാം കിട്ടുകയുള്ളു അല്ലെങ്കില് കുട്ടികള് വീട്ടിൽ തന്നെ ഇരുന്നാൽ അവര് ഫോണില് ഫോണില് മെയ്നായിട്ടവര് ഇപ്പോഴ് ഇപ്പഴത്തെ കാലത്ത് ഫോണിലിങ്ങനെ യൂസ് ചെയ്ത് മെയ്നായിട്ട് ഫോണിലാണ് അവര് കളിച്ചുകൊണ്ടിരിക്കണത് ഫോണില് ഗെയിംസും സോഷ്യൽ മീഡിയാസിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയ്നായിട്ട് ചെയ്യണത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഈ കായികപരമായിട്ട് കളിക്കുന്നവര് അതെല്ലാ തരത്തിലുമുള്ള കുട്ടികളുണ്ട് ഇന്നിപ്പം അ ആ അതിപ്പം ഫിസിക്കലി ഒരു ഇത് വേണം മെയ്നായിട്ട് ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാല് കായികപരമായിട്ട് എന്തായാലും കളി എന്തായാലും ഒരു പ്രവർത്തി ഉണ്ടായിരിക്കണം കുട്ടികളുടെ ഇടയില് അത് അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒര് നല്ലൊരു ഉണർവ്വും സന്തോഷമെല്ലാം ഉണ്ടാക്കും ഉണ്ടാക്കുകയും ചെയ്യും